ഹലോ റിഥയ്ന്റെ അച്ഛനല്ലേ ആഹ് അവന് ഭയങ്കര വൊമിറ്റിങ്ങൊക്കെ ആയിരുന്നു അപ്പം ഗ്രൗണ്ടിലൊന്ന് തലകറങ്ങി വീണിട്ടൊക്കെയുണ്ടായിരുന്നു അപ്പം ഇവിടെ കിടത്തിയിട്ടാ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടറ് പറഞ്ഞിരുന്നു മെഡിക്കൽ കോളേജിൽ കാണിക്കേണ്ടിവരുമെന്നാ പറഞ്ഞത്

രാവിലെ ശർദ്ദിക്കുകയോ അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടായിരുന്നോ അല്ല എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ ഇതിനുമുമ്പ് വന്നായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ജന്മനാ അങ്ങനെ വോമിറ്റിങ്ങാ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുനേരം ശർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു നല്ലവണ്ണം ബ്ലഡ് ഒക്കെ ഉണ്ടായിരുന്നെന്നൊക്കെയാ പറഞ്ഞത് അപ്പം നിങ്ങൾ എപ്പോഴാ വരുക കുട്ടിനെ ആ ഇവിടുത്തെ ക്ലിനിക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ റെഫർ ചെയ്ത് അങ്ങോട്ടേക്ക് എന്നാൽ നിങ്ങൾ ഇപ്പോൾ വരുമോ ആ രണ്ടുപേർ ഉണ്ടെങ്കിൽ കുട്ടീനേ എടുക്കണമായിരുന്നു കുട്ടിയിപ്പോൾ മയക്കത്തിലാണുള്ളത് ആണോ ഓക്കെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പം ഉറങ്ങുന്നതാണ് ഇപ്പം ഒരു സെഡേഷൻ ഉണ്ട് രണ്ട് ഇൻജെക്ഷൻ വെച്ചിട്ടുണ്ട് ആ ഫുഡ് ഒക്കെ കഴിച്ചിട്ടാണോ വന്നേക്കണത് ആ ആ അവർ രണ്ട് നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തു പക്ഷെ കിട്ടീല്ല ആ നാല് മണിവരെ ക്ളാസ്സുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഇവിടെ ആയയുണ്ട് നോക്കാൻ വേണ്ടീട്ട് ഓക്കെ ആ ഓക്കെ താങ്ക് യൂ